ഫോട്ടോഗ്രാഫി ഒരു വിനോദമായികൊണ്ട് നടക്കാനുള്ള പ്രധാന ഒരു പ്രചോദനം എന്നു പറയുന്നത് എൻ്റെ ചേട്ടൻ തന്നെയാണ് കാരണം എൻ്റെ ചേട്ടനൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ ഏട്ടനെടുക്കുന്ന ഫോട്ടോസുകളെല്ലാം കണ്ടിട്ടാണ് പ്രചോദനം കൊണ്ടിട്ടാണ് ഞാൻ ഈ ഫോ ഫോട്ടോഗ്രാഫി ഒരു ഹോബിയാക്കി തീരുമാനിക്കാനുള്ള കാരണം കാരണം ഏട്ടൻ്റെ ഫോട്ടോസുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഞാനും ഫോട്ടോയെടുക്കാൻ തുടങ്ങി അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതുകൊണ്ടുതന്നെയാണ് ഞാനിതൊരു ഹോബിയാക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ട് ഏട്ടൻ തന്നെയാണ് എൻ്റെയൊരു പ്രചോദനം